റേഡിയോ ടെലിവിഷൻ അച്ചടി തുടങ്ങിയ മാധ്യമങ്ങളിൽ മലയാള ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും മലയാള ഭാഷക്ക് ഇപ്പോഴും അർഹതപെട്ട പ്രാധാന്യം ഈ മാധ്യമങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല റേഡിയോയിലാണെങ്കിലും മലയാളതിലെ ചലച്ചിത്ര ഗാനങ്ങൾ വാർത്തകൾ പ്രാദേശികം ഇങ്ങനെ വളരെ ചുരുങ്ങിയ വിഷയങ്ങളിലായിട്ട് ഒതുങ്ങുന്നത് കാണാം അത് പോലെ തന്നെ ടെലിവിഷൻലും ഇത് പോലെ തന്നെയാണ് വാർത്തകൾക്ക് പ്രാദേശിക വാർത്തകൾ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് മലയാളത്തിൽ നമുക്ക് കാണാൻ കഴിയും അത് പോലെ അച്ചടി മാധ്യമങ്ങളിൽ ഇപ്പോഴും മലയാള ഭാഷക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല ഇപ്പോൾ നമ്മൾ പരിശോധിക്കാണെങ്കിൽ പല കോടതി ഉത്തരവുകൾ അത്പോലെ സർക്കാർ ഉത്തരുവുകൾ തുടങ്ങിയവൊക്കെത്തന്നെ ഇപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ അടിച്ച് ഇറക്കുന്നത് കാണാൻ കഴിയും പക്ഷേ ഇതിനൊരു മാറ്റം വരുത്തുന്നതിന് സർക്കാരും പല ഏജൻസികളും ശ്രമം നടത്തിയിട്ടും ഇപ്പോഴും ഇത് പയേ പഴയ പോലെ തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇതിന് ഒരവസാനം അവസാനം കാണേണ്ടത് ആവശ്യമാണ് മലയാള ഭാഷക്ക് വേണ്ട പ്രധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഭരണകൂടം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്